ഹലോ വാട്ടർ അതോറിറ്റി അല്ലേ ആ ഞാനൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയ പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോള് അവിടെ പൂക്കൾക്കു വെള്ളം നനയ്ക്കുന്ന സമയത്ത് മീറ്ററിനു സമീപത്തായിട്ടൊരു കുഴി കണ്ടു അപ്പോള് അത് ഇപ്പോള് ഞാന് ആദ്യമിതുപോലെ കണ്ടിരുന്നു പക്ഷെ അതു ചെറിയൊരു കുഴിയായിരുന്നു പക്ഷേ ഇപ്പോഴതു വലുതായിട്ടു വരുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല ആ ഞാനൊരു രണ്ടാഴ്ച മുന്നെയതു കാണുമ്പോൾ ചെറുതായിരുന്നു പക്ഷെ ഇന്നിപ്പോള് നനയ്ക്കുമ്പോഴണത് ആ കുറച്ചും കൂടി എൻ്റെ കണ്ണിനു ശ്രദ്ധയില്പ്പെട്ടത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് ഇപ്പോഴവിടെ ആയിത്തുടടങ്ങിയിട്ടെനിക്ക് തോന്നുന്നച് ഒരു രണ്ടുമൂന്നാഴ്ച്ച ആയിരിക്കണം രണ്ടാഴ്ചയ്ക്കു മുന്നെയതു ചെറുതായിരുന്നു ഇപ്പോള് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്

നിങ്ങൾക്കതിലെന്തെങ്കിലും വന്നു നോക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ജലസ്രോതസ്സിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ ആണോ അല്ലെങ്കില് വാട്ടര് ഹീറ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അങ്ങനെ വരുന്നത് എന്നുള്ളതു നിങ്ങൾക്കൊന്നു വന്നുനോക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് അപ്പോള് നിങ്ങൾ അതു നാളെയോ മറ്റന്നാളോ വന്ന് അതൊന്നു പെട്ടെന്നുതന്നെ അതൊന്നു വന്നു നോക്കണം